കൊറോണ രണ്ടാ രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നത് അപ്പോൾ ആ കൊറോണ ആരംഭിച്ച സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ മോൻ്റെ കൂടെയും ബാംഗ്ലൂരായിരുന്നു അപ്പോൾ കൊറോണ ആരംഭിക്കുന്നു ലോക്ക് ഡൗൺ ആകാൻ പോകുകയാണ് എന്നുള്ളതിനെപ്പറ്റിയുള്ള അറിയിപ്പ് വന്നപ്പോൾ തന്നെ വേണ്ട മുൻകരുതലോടുകൂടി തന്നെയാണ് എന്നെ ബാംഗ്ലൂരില്നിന്നും പിള്ളേര് ഇങ്ങോട്ട് കയറ്റി വിട്ടത് ബസിലാണ് ഞാൻ വന്നത് കയ്യില് സാനിട്രൈസറും പിന്നെ മാസ്ക്കും ധരിച്ചാണ് വന്നത് അന്ന് ഒക്കെ ആദ്യമായി മാസ്ക്ക് ധരിക്കുമ്പോള് മാസ്ക്ക് ധരിക്കുന്നവരെ നമ്മള് ഇങ്ങനെ അദ്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സമയമായിരുന്നു അത് എന്നാലും മാസ്ക്കൊക്കെ ധരിച്ച് ഇവിടെ വീട്ടിലെത്തി വീട്ടില് ഹസ്ബൻഡ് തന്നെ ഉള്ളായിരുന്നു അങ്ങനെ വന്ന് ഞങ്ങള് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിയും പലവ്യഞ്ജനങ്ങളും ഉണക്ക മീനും ഒക്കെ വാങ്ങിവച്ചു ഇതൊന്നും മീനൊന്നും ഇനി കിട്ടത്തില്ലാന്ന് അറിഞ്ഞ് എല്ലാം വാങ്ങിവച്ച് ഞങ്ങളൊരു വീടുകളിലും അപ്പുറവും ഇപ്പുറവും ഒന്നും ഒരിടത്തും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെലവഴിക്കുകയാണ് ചെയ്തത് അവിടെ ഇരുന്ന് ഞങ്ങള് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഞങ്ങള് രണ്ട് പേരും തന്നെയല്ലെ ഉള്ളു പ്രാർഥനയ്ക്കായിട്ട് കൂടുതലും സമയം കണ്ടത്തി വാട്ട്സപ്പിലൂടെ കുറേ കൂട്ടുകാരികളെയൊക്കെ ഞങ്ങളുടെ പള്ളിയിലുള്ള കുറേ കൂട്ടുകാരികളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് പുതിയൊരു വാട്സ്പ്പ് ഗ്രൂപ്പ് ആരംഭിച്ചു അതില് ജപമാലകള് ചൊല്ലുവാനും പ്രാർഥനയ്ക്കും ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച് നിയോഗങ്ങൾ വെച്ച് പ്രാർഥിക്കുകയൊക്കെ ഞങ്ങള് നടത്തി ഓൺലൈനായിട്ട് ഞങ്ങള് മീറ്റിങ്ങുകളൊക്കെ നടത്തി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഓൺലൈൻ പ്രാർഥനകളൊക്കെ ഞങ്ങള് നടത്തി അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഇരുന്നത് പുറത്തേക്ക് പോയില്ല വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞങ്ങള് ടി വി യേണ് ആശ്രയിച്ചത് ടി വിയില് ഞങ്ങള് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു ഞങ്ങള് പിന്നെ പുറത്തേക്ക് ഒരു കാരണവശാലും ഞങ്ങള് പോകത്തില്ലായിരുന്നു ആരെങ്കിലും വീട്ടിൽ വന്നാലും ഞങ്ങള് സിറ്റൗട്ടിൽ ഇരുത്തുവുള്ളൂ പെരയ്ക്കകത്തേക്ക് കയറ്റത്തില്ല അവര് വന്നിട്ട് പോയിക്കഴിയുമ്പോൾ തന്നെ ഞങ്ങള് മാസ്ക്ക് ധരിച്ചാണവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അവര് വന്നിട്ട് പോയിക്കഴിയുമ്പോൾ തന്നെ സാനിറ്റട്രൈസറുപയോഗിച്ച് ഞങ്ങള് കസേരയും എല്ലാം തുടയ്ക്കുമായിരുന്നു കസേരയൊക്കെ തുടച്ച് സിറ്റൗട്ടൊക്കെ സോപ്പൊക്കെ ഒഴിച്ച് കഴുകിയാണ് ഞങ്ങള് കൊറോണയെ പ്രതിരോധിച്ചത് ഈ ന്നെ പിന്നെ അത് കഴിഞ്ഞ് കൊറോണയുടെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ക്ലാസ് കൊടുക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് അപ്പോള് ഞങ്ങളുടെ പിള്ളേര് പാസ്സെടുത്ത്

എല്ലാം കൊടുത്തു അവരുടെ വസ്ത്രങ്ങളെല്ലാം ഞാൻ പ്രത്യേകം ബക്കറ്റിൽ മേടിച്ച് ഡിറ്റർജൻറ്റിനൊക്കെ ഇട്ട് ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ഉണക്കി നല്ല വെയിലത്തിട്ട് ഉണക്കിയൊക്കെയാണ് ഞാനെടുത്തത് അങ്ങനെ ഞങ്ങള് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങള് മക്കളും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തിരി കലാമായായിരുന്നെ ഒരുപാട് ഒന്നോ രണ്ടോ ദിവസം വരും അപ്പോഴത്തേനും ഇവര് ബന്ധുവീടുകളിലും അവിടെ ഇവിടേ ഒക്കെ പോകും ഞങ്ങൾക്കൊരുമിച്ച് ചെലവഴിക്കാൻ കിട്ടുന്നില്ലായിരുന്നു അപ്പോള് കൊറോണ ഞങ്ങൾക്കൊരു പ്രതി അനുഗ്രഹവും അനുഭവമായിട്ടാണ് മാറിയത് കൊറോണ സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടി പിന്നെ ഞങ്ങൾക്ക് നല്ല ഉല്ലാസത്തോട് കൂടി സന്തോഷത്തോട് കൂടി കൊറോണ സമയം ഞങ്ങള് ചെലവഴിച്ചു കൊറോണ സമയത്ത് ഞങ്ങൾക്ക് നല്ല ആഹ്ളാദമായിരുന്നു സന്തോഷമായിരുന്നു കാരണം ഞങ്ങൾക്ക് മക്കളുടെ കൂടെ ചെലവഴിക്കുവാനും പിന്നെ ഹസ്ബൻഡാണേലും എപ്പഴും പുറത്ത് പോകുന്നെ ആളായിരുന്നു കൊറോണ ആരംഭിച്ചതിന് ശേഷം പുള്ളിക്കാരനും പുറത്ത് പോകത്തില്ല വീട്ടില്ത്തന്നെ എന്നോടൊപ്പം ചെലവഴിക്കുന്നു ഒത്തിരി സമയം എൻ്റെ ഹസ്ബൻഡിൻ്റ കൂടെ ചെലവഴിക്കാനും മക്കളുടെ കൂടെ ചെലവഴിക്കുവാനും കിട്ടി നല്ല ഉല്ലാസകരമായിട്ടാണ് ഞങ്ങള് കൊറോണ സമയം ചെലവഴിച്ചത് കൊറോണ കാലം ഞങ്ങൾക്ക് നല്ല ഒരനുഭവമായിരുന്നു ഞങ്ങള് എവിടെ പോയാലും സാനിട്രൈസർ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു മാസ്ക്കും ധരിക്കുമായിരുന്നു പിന്നെ ഞങ്ങള് തുടച്ച് എല്ലാം വൃത്തിയാക്കി നല്ല പിൻ നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ട് ഞങ്ങള് കൊറോണ സമയം ചെലവഴിച്ചു പ്രാർഥനയ്ക്ക് മുൻതൂക്കം നൽകി എല്ലാം കൊണ്ടും നല്ലയൊരു അനുഗ്രഹമായിരുന്നു കൊറോണ സമയം എല്ലാവർക്കും വിഷമവും ദുഃഖവും വേദനയൊക്കെ ആണങ്കിലും ഞങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച് കൂടുവാൻ കിട്ടിയ ഒരു അനുഭവമായിട്ട് ഞങ്ങൾ കൊറോണയെ പിന്നെ ഉപയോഗപ്പെടുത്തി സന്തോഷകരമായി ഞങ്ങളത് പിന്നെ കൊണ്ടുനടന്നു ഇത്രയക്കെയാണ് ഞങ്ങളുടെ കൊറോണ സമയത്ത് ഞങ്ങളെടുത്തത് ഞങ്ങളുടെ വീട്ടിലേക്കങ്ങനെ പ്രത്യേകിച്ചാരെയും പിന്നെ ഞങ്ങള് കയറ്റാൻ ശ്രമിച്ചില്ല അത് ഞങ്ങൾക്കാരുടെയും വീട്ടിൽ പോകാത്തത് കൊണ്ടാരെയും ഞങ്ങളുടെ വീട്ടിലേക്കും വന്നില്ല കൊറോണ സമയത്ത് നല്ല സന്തോഷമായിരുന്നു എല്ലാം കൊണ്ടും